നെയ്ത്തും തുന്നലുമെന്നു പറയുന്നത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു ജോലിയാണ് കാരണം അതുവഴിയാണു ഞാനെൻ്റെ ജീവിതം മുന്നോട്ട് കെട്ടിപ്പടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എൻ്റെ ആദ്യകാലങ്ങളിലെനിക്ക് ജോലിയില്ലാതിരുന്നപ്പഴും ഞാനീ വർക്കാണ് ചെയ്തിരുന്നത് പക്ഷെ ഇപ്പഴും ജോലി ഉണ്ടെങ്കിലും ഞാനതില് സമയം കണ്ടെത്തി ഞാനാ ജോലി ചെയ്ത് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എംബ്രോയിഡറി അല്ലെങ്കില് ഈ നെറ്റില് വർക്ക് ചെയ്യുക നമ്മുടെ സ്വീക്കൻസ് മുത്തുകള് അങ്ങനെയുള്ള വർക്കുകള് ചെയ്യുന്നതാണ് അതിന് കൂടുതൽ പൈസ കിട്ടും പക്ഷെ അത് അതിനിപ്പോൾ അതുപോലെത്തന്നെ മെനക്കെട്ടിരുന്നു നമ്മള് നമ്മുടെ ക്ഷമയോടു കൂടിയിരുന്ന് ചെയ്യേണ്ട കാര്യവുമാണ് അത് നമ്മളുടെ പ്രായം കൂടുന്നവർക്കാണെങ്കില് കണ്ണിനും ശരീരത്തിനുവൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുകള് തരാറുണ്ട് പിന്നെ തൈക്കുന്നതുമായിട്ട് എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടുണ്ട് കാരണം നമ്മള് തുണി വെട്ടുമ്പഴത്തേക്കും അതിൽ നിന്ന് നൂലിൻറ്റെ പൊടി വരും ഇ ഞാനൊരു അലർജറ്റിക് പേഷ്യൻറ്റായിട്ട് മാറിയതങ്ങനെയാണ് അപ്പം എനിക്കൊരാസ്മായുടെ അസുഖം ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷമാണെല്ലാവരും മാസ്ക്ക് ഉപയോഗിച്ച് കാര്യങ്ങള് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഞാനും ഇപ്പോൾ ചെയ്യുന്നത് മാസ്ക്ക് ഉപയോഗിച്ചാണ് തുണി വെട്ടുകയും തൈക്കുകയൊക്കെ ചെയ്യുന്നത് മറ്റേ വർക്ക് ചെയ്യുമ്പഴ്ത്തേക്കും ഞാൻ അതായത് സ്വീക്കൻസിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പഴത്തേക്കും മാസ്ക്കൊന്നും വേണ്ട അല്ലാതെ തന്നെ ഉപയോഗിക്കാം പക്ഷെ അത് വളരെ ശ്രദ്ധ യോടുകൂടിയും ഏകാഗ്രതയോടും മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ നമ്മള് മൈൻഡ് റിലാക്സ് ആയിട്ടിരുന്നു വെച്ച് ചെയ്തെങ്കിൽ മാത്രമാണതിന് കൂടുതല് ഫിനിഷിങ് കിട്ടുന്നത് അത് അത് നമ്മുടെ ക്രീയേറ്റീവിറ്റിയാണത് ഒരു മനുഷ്യന് നന്നായിട്ടത് നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനത് നന്നായിട്ട് ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് തുണി വെട്ടുന്നതും അത് മാത്രമാണിച്ചിരി ബുദ്ധിമുട്ടായിട്ട് പക്ഷെ എന്നാലും എനിക്ക് തയ്യലിനോട് വളരെ ഇഷ്ടമായതു കൊണ്ട് ഞാനതും നന്നായി ചെയ്യാറുണ്ട് കൂടുതൽ വർക്കുകളെനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ടെനിക്ക് ഒരുമാസം നന്നായിട്ട് ഞാൻ ഏൺ ചെയ്യാറുമുണ്ട് എനിക്കൊരു കുറഞ്ഞതൊരു പത്ത് ഒരു ഗൌണും ഒക്കെ കൂടെ ചെയ്ത് കഴിയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഇപ്പം എമൗണ്ട് തുക തന്നെ അതിൽനിന്നുണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊണ്ടുപോകാനുമെനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു തയ്യലെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽത്തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറൊരു ജോലിയില്ലേലും അത്യാവശ്യം അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയാനും സമ്പാദിക്കാനും പറ്റുന്നതാണ് അതുകൊണ്ട് നെയ്ത്തും തുന്നലും എൻ്റെ ജീവിതത്തിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളതാണ്